ഹെ ഹെഡ്സെറ്റിനെ പൊതുവെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് വലിയ ക്വാളിറ്റിയില്ലാന്നു പറയാൻ കാരണം ഇതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള കളർ ഫെയ്ടൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് മേടിച്ചപ്പോൾ ഉള്ള കളറൊക്കെ ഫെയ്ഡായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണിത് യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഇതിൻ്റെ ബഡ്ഡിനൊന്നും വലിയ ക്വാളിറ്റി എനിക്ക് ഫീല് ചെയ്തിട്ടില്ല കാരണം ബഡ്ഡൊക്കെ എന്താ പറയുക കുറച്ച് നാള് കഴിയുമ്പത്തേക്കും പൊട്ടിപോകും അങ്ങനത്തെ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ട് റബ്ബറിൻ്റെ ബഡ്ഡായതുകൊണ്ടു ഇത് എന്ത് പറയുക പെട്ടെന്ന് പെട്ടന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി പോവുകയായിരുന്നു പിന്നെ ഇതിൻ്റെ സൗണ്ടൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടൊക്കെ ഇതിന് ഓൾമോസ്റ്റ് കുറവാണ് പിന്നെ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന് ഭയങ്കര എന്താ പറയുക മറ്റ് ഹെഡ്സെറ്റുകളെ അപേക്ഷിച്ചു ഇതിന് സൗണ്ട് ഭയങ്കര കുറവാണ് പിന്നെ ഇതിലെ നോയിസും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാസ്സൊന്നും കറക്ട് കിട്ടുന്നില്ല പിന്നെ നോയിസൊക്കെ ഭയങ്കര നോയിസൊക്കെ വരുന്നുണ്ട് പിന്നെ എന്താ പറയുക ഇതിനു ബ്ലുടൂത്ത് കുറച്ച് ഡിസ്റ്റൻസ് കൂടുതല് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ഷൻ ഇതായിപ്പോവാണ് ബ്രേക്കാവുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബിൽട് ക്വാളിറ്റിയൊക്കെ ഭയങ്കര മോശമാണ് ഇത് ഒരു ക്വാളിറ്റിയില്ലാത്ത പോലത്തെ പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത്തരത്തിൽ പറയുമ്പോൾ ഇതുപോലത്തെ ഒരു ഹെഡ്സെറ്റ് എൻ്റെ ഫ്രണ്ട്സിനെ ആരേലും അവരൊക്കെ യൂസ് ചെയ്യുമ്പോഴും ഇതേ ബുദ്ധിമുട്ടുകളാണ് അവരും പറയുന്നത് ഇത് അത്ര ബെറ്ററായിട്ടുള്ള ഒരു പ്രോഡക്ടയിട്ടെനിക്ക് അതുകൊണ്ട് തോന്നുന്നില്ല ഇത് ഇതിലും ബെറ്ററ് നല്ല വേറെ കമ്പനികളുടെ സാധനങ്ങളെടുക്കുന്നെയായിരിക്കുന്നാണ് എനിക്കും തോന്നുന്നത്